തെരഞ്ഞെടുപ്പ് വരുന്ന കാലയളവിൽ സാധാരണ മനുഷ്യർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ആഹാര സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കൂടുന്ന ഒരവസ്ഥയാണ് ആ സമയങ്ങളിൽ ഉണ്ടാവുന്നത് ആ കാരണം അവർ പറയുന്നത് കച്ചവടക്കാർ പറയുന്ന കാരണം സാധനങ്ങളുടെ ലഭ്യത കുറവായത് കൊണ്ടും അതുപോലെ സാധനം കൊണ്ട് വരാനുള്ള വാഹനങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടും സാധനങ്ങൾക്ക് വില അവർ കൂട്ടില്ല എല്ലാ സാധനങ്ങൾക്കും സ വില ക്രമാധീതമായി കൂടുന്ന ഒരു സമയമാണ് ഇലക്ഷൻ്റെ സമയം തെരഞ്ഞെടുപ്പിൻ്റെ സമയം തെരഞ്ഞെടുപ്പിന് ഡേറ്റ് പരസ്യപ്പെടുത്തി കഴിയുമ്പോൾ കൊമേർഷ്യൽ വാഹനങ്ങൾ സാധനങ്ങൾ കൊണ്ട് വരുന്ന പബ്ലിക് കാരിയെർസ് ഇതിനെയെല്ലാം സർക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ഇലക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പിടിക്കുന്നതും അത് പൊതു ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രശ്നം കൂടിയാണ്